ഞാൻ ഏറ്റവും കൂടുതല് സന്തോഷിക്കുന്നത് പട്ടണങ്ങളിലാണ് വേറൊന്നും കൊണ്ടല്ല എൻ്റെ നാട്ടില് പട്ടണങ്ങളിലാണ് സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കിട്ടാറുള്ളത് അപ്പം ഞാന് പട്ടണങ്ങളിലാണ് സന്ദർശിക്കാറുള്ളത് വേറൊന്നും കൊണ്ടല്ല നമ്മൾക്ക് ആവശ്യമായ അതെൻ്റെ നാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും ആവിശ്യമായ സാധനങ്ങള് കിട്ടുന്നത് പട്ടണങ്ങളിൽ നിന്നാണ് എല്ലാ ആഴ്ചയിലും രണ്ടും മൂന്നും തവണയും വച്ച് ഞാൻ പട്ടണങ്ങളിൽ പോകാറുണ്ട് പട്ടണത്തിൽ പോകാറുണ്ട് പട്ടണത്തിൽ പോകുമ്പഴത്തേനും അവിടുന്ന് എനിക്ക് ആവശ്യമായ സാധനങ്ങളും ഞാൻ വാങ്ങിക്കാറുണ്ട് അത് കൂടാതെ എൻ്റെ കൂട്ടുകാരികളെ കാണാൻ ഞാൻ പോകാറുണ്ട് എൻ്റെ അനിയത്തി സഹോദരി പഠിക്കുന്ന വിദ്യാലയം അത് പട്ടണത്തിലാണ് അപ്പം അവളെ വിളിക്കാനായിട്ട് അവളുടെ പഠന സമയം കഴിഞ്ഞ് അവളെ വിളിക്കാനായിട്ട് ഞാന് പോകാറുണ്ട് പിന്നെ നമുക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഉള്ള സാധനങ്ങള് വാങ്ങിക്കാനും പട്ടണത്തിലാണ് പോകാറുള്ളത് അപ്പം അങ്ങനെ എല്ലാവർക്കും ഉള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി എല്ലാവരും പട്ടണത്തിലാണ് പോകാറുള്ളത് എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ എടുത്ത് പറയുന്നത് അപ്പം അത് കൂടാതെ തന്നെ നമ്മുടെ പല എന്താണ് ആവശ്യങ്ങൾക്കും അത് നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണേലും അല്ലാതെ നമ്മുടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സാധിക്കാൻ ഒക്കെയുള്ള അക്ഷയ കേന്ദ്രം പോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിൽ പട്ടണത്തിൽ തന്നാണ് പോകാറുള്ളത് അത്കൂടാതെ നമ്മുടെ വൈദ്യുതി ഓഫീസ് വൈദ്യുതി കാര്യാലയം അവിടെ പോകുമ്പോഴും പിന്നെ അല്ലാതെ നമ്മുടെ പഞ്ചായത്തിലോക്കെ പോവുന്നതെല്ലാം പട്ടണത്തിലാണ് പട്ടണത്തിലാണ് ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതല് സൗകര്യങ്ങളും നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കിട്ടുന്നതെല്ലാം പട്ടണത്തിലാണ് അല്ലാതെ വേറൊരിടത്തും കിട്ടാറില്ല പൊതുവേ